ഞാനൊരു സ്കൂൾ അധ്യാപികയാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നും അതാണ് സ്കൂൾ അധ്യാപിക ആകണ്ട എല്ലാ യോഗ്യതകളും ഞാൻ നേടിയിട്ടുണ്ട് സമൂഹത്തിലെ മറ്റ് ഏത് ജോലിയേക്കാളും ഏറ്റവും എത്ര മറ്റ് ഏത് ജോലികളിൽ എത്ര ശമ്പളം വാങ്ങിയാലും ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു ജോലി അധ്യാപകനമാണ് ആ അധ്യാപനത്തിലൂടെയാണ് നമ്മള് മറ്റ് തലമുറകളിലുള്ളവരെയും വാർത്തെടുക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ നമ്മളിപ്പം പറയുമ്പോൾ ഒരു ടീച്ചറാണ് ആ ടീച്ചറാണ് പുതു തലമുറയെ സൃഷ്ടിക്കുന്നത് മറ്റൊരു ജോലി നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയർ ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിലൊരു ടീച്ചർ ഉണ്ടാവണം എന്നാണ് പറയുന്നത് ആ ഒരു മറ്റുള്ളവർ നമുക്ക് തരുന്ന ബഹുമാനം ആ ഒ എൻ്റെ വീട്ടിലെൻ്റെ അച്ചാച്ചൻ തുടങ്ങിയ രണ്ടു മൂന്നു പേരുകള് അധ്യാപകരാണ് അവർ അവരോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ആ ബഹുമാനം എന്നെ ഈ ജോലിയിലേക്ക് ഏറ്റവും കൂടുതല് അടുപ്പിക്കുന്ന ഒന്നാണ് ആ ബഹുമാനം കൊണ്ടാണ് ഏറ്റവും കൂടുതല് ഞാനീ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ന് സമൂഹത്തില് പണം ഏറ്റവും ആവശ്യമായ ഒന്നാണ് ഒരു സർക്കാർ ജോലിയിലുള്ള ഒര് അധ്യാപികയ്ക്ക് ഇന്ന് നല്ല രീതിയിലുള്ള സാലറികളും എല്ലാമുണ്ട് അപ്പോൾ ആ ഒരു ജീ ജോലി നേടി കഴിഞ്ഞാൽ എൻ്റെ ഈ ജീവിതം വളരെ നല്ലതായിരിക്കും ഭദ്രമായിരിക്കും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട് അതുകൊണ്ടു തന്നെ ഞാനതിനായി പ്രയത്നിക്കുന്നുമുണ്ട് ഞാൻ കേരള പി എസ്സിക്കു വേണ്ടിയിട്ട് കാര്യമായി ഇപ്പോൾ ഈ എൽപി യുപി അസിസ്റ്റൻ്റ് തസ്തികയിലിണ്ട് എച്ച് എസ് എ തസ്തികകളിലുണ്ട് ആ തസ്തികകൾക്കുള്ള പരീക്ഷക്കായി തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്